ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് കൂടുതലായും ആസ്വദിച്ച് വരുന്ന കളികളായിരുന്നു ലുഡോ ക്യാരംസ് പാമ്പും കോണിയും ചെസ്സ് എന്നിവ ഞാൻ എൻ്റെ അനുജന്മാരും ഉമ്മയുടെ ഏടത്തിയുടെ മക്കളും എല്ലാവരും ചേർന്ന് വെറുതെ ഒഴിവ് സമയങ്ങളിൽ കളിച്ച്കൊണ്ടിരിക്കും പിന്നെ അത് ഒരു വാശിയാകും ഭയങ്കര രസമായിരുന്നു എനിക്ക് എന്തോ അതിനോട് ഭയങ്കര യോജിപ്പായിരുന്നു